ഞങ്ങളുടെ ഈ സ്ഥലത്ത് കൂടുതലായിട്ട് ആദരിക്കുന്നത് എന്ന് പറയുന്നത് അച്ചന്മാരെയും സിസ്റ്റർമാരെയും ഒക്കെയാണ് പിന്നെ ടീച്ചേർസിനെയും അത്യാവശ്യം എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അച്ചന്മാരെയും സിസ്റ്റർമാരെയും കാണുമ്പോഴത്തേക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറയും പിന്നെ അവരുടെ അവർ ആ ഒരു ബഹുമാനമുണ്ട് എല്ലാവർക്കും അത് ഇപ്പം പാ ൻ ക്രിസ്ത്യൻമാരാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ആ ഒരു ബഹുമാനം അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും കൊടുക്കുന്നവർ ഞങ്ങളെ ഈ ഒരു ഏരിയയിൽ കുറച്ച് കൂടുതലുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാർ പഠിച്ച അധ്യാപകരെ കാണുമ്പോൾ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു മര്യാദയാണെന്ന് അറിയാവുന്നതും അത് പാലിക്കുന്നവരുമായ ഒരുപാട് പേരുണ്ട്